ലോക്ക് ഡൗൺ കാലത്ത് പല സാധനങ്ങളും ഭയങ്കര എല്ലാവരും ഫേസ് ബുക്കിലും ഇൻസ്റാഗ്രാമിലും യുട്യൂബിലെല്ലാം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലവിധ പുതിയ വിഭവങ്ങൾ പരീക്ഷിച്ചിട്ട് യുട്യൂബിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അന്ന് തൊട്ടേ എനിക്ക് ആഗ്രഹമാണ് കുറെ വെറുതെ ഇരിക്കുന്ന സമയല്ലേ അപ്പം പഠിക്കുന്നില്ല ഫുൾ ഓൺ ലൈൻ ക്ലാസ്സിലായത് കൊണ്ട് എന്തെങ്കിലും എല്ലാ പുതിയതായി പരീക്ഷിച്ച് നോക്കണം അല്ലേ എന്തെങ്കിലും വിഭവം ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹായിനു പക്ഷേ ഒറ്റക്ക് ഞാൻ അടുക്കളയിൽ കയറലില്ല കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ അന്നത്തെ പണിയൊന്നും അടുക്കളയിൽ നടക്കൂല്ല അമ്മക്ക് വേറെയും അന്നത്തെ ദിവസത്തെ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഉണ്ടാവും അച്ഛന് ഓഫീസിൽ പോകുന്നത് കൊണ്ട് അച്ഛന് ദിവസോം രാവിലെ അച്ഛൻ്റെ ഭക്ഷണം പൊതിഞ്ഞ് കൊടുക്കേണ്ടത് കൊണ്ട് രാവിലെയൊന്നും കയറില്ല അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പം വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം അച്ഛൻ ഓഫീസിന്ന് വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ എന്താ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ചെയ്യണന്നാഗ്രഹം വരുക അങ്ങനെയാണ് ഡാൽഗോണ കോഫീന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ട്രെൻറ്റായ ഒരു സാധനമായിരുന്നു ലോക്ക് ഡൗൺ കാലത്ത് അപ്പം ഡാൽഗോണ കോഫീ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അതൊരു ദിവസം ഉണ്ടാക്കി പിന്നെ ഒരു ദിവസം ചക്കക്കുരുനെ കൊണ്ട് ഷേക്ക് ആ ഇടേയായിട്ട് ഫേസ് ബുക്കിലെപ്പോഴും എല്ലാവരും പല അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഫേസ് ബുക്കിലൊക്കെ ഇങ്ങനെ പാചകത്തിൻ്റെ വിഭവങ്ങളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അന്ന് ഭയങ്കര എല്ലാവരുടെ ഇടയിലും ചർച്ചയായൊരു സാധനമായിരുന്നു ചക്കക്കുരുനെ കൊണ്ടുള്ള ഷേക്ക് അപ്പം അന്ന് വീട്ടിൽ അമ്മേം ഞാനും കൂടി ചക്കക്കുരുനെ കൊണ്ട് ഷേക്ക്ണ്ടാക്കി അതുപോലെ എല്ലാവരും ഓവനിലും ഒക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അമ്മയും കുക്കറിൽ കേക്ക്ണ്ടാക്കി ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ ഓവനില്ല പക്ഷേ കുക്കറിലും കേക്ക്ണ്ടാക്കാന്ന് അമ്മ ഒരു വീഡിയോകളിലൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം പറ്റുമെന്നു പറഞ്ഞപ്പം പ്രഷർ കുക്കറിൽ നമ്മൾ കേക്ക്ണ്ടാക്കിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക്ണ്ടാക്കി അതുപോലെ അന്ന് പരീക്ഷിച്ചതാണ് മുരിങ്ങാ പൂവ് ഉപ്പേരി മുരിങ്ങ പൂവ് ഉപ്പേരിന്ന് പറയണത് വളരെ സ്വാദുള്ള ഭയങ്കര പോഷകങ്ങളടങ്ങിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് മുരിങ്ങ ചപ്പ് എരിശ്ശേരിയും അങ്ങനെ തന്നെയാണ് മുരിങ്ങ ചപ്പ് എരിശ്ശേരിയും ഞാൻ എപ്പോഴും കൂട്ടാറുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഞങ്ങളെ വീട്ടിലെല്ലാവരും കൂട്ടാറുണ്ട് അതിൽ ഉള്ളിയും സവാളയും അതുപോലെ തന്നെ കടുക് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ശരീരത്തിന് ഭയങ്കര നല്ല ഘടകങ്ങളാണ് അതുകൊണ്ടന്നെ വെളുതുള്ളിയൊക്കെ ഇഷ്ടമായത് കൊണ്ടന്നെ കുറച്ച് കൂടുതലിടും അപ്പം മുരിങ്ങ ചപ്പ് ഉപ്പേരി ഉപ്പേരി വക്കും അതുപോലെ മൊളേഷ്യം വക്കും അപ്പം മുരിങ്ങേൻ്റെ പൂവ് കൊണ്ട് ഉപ്പേരിണ്ടാക്കാന്ന് അപ്പോഴാണ് ഞാൻ അമ്മ പറഞ്ഞിട്ടറിയുന്നത് അങ്ങനെ ഒരു ദിവസം പരീക്ഷിച്ചതാണ് മുരിങ്ങ പൂവ് ഉപ്പേരി പൂവ് വളരെ ചെറിയ തോതിലെ നമുക്ക് പറിച്ച് കിട്ടുവൊള്ളു അതുപോലെ വച്ച് വരുമ്പം ആ ഉള്ളത്ര പൂവും കുറഞ്ഞിട്ട് കുറച്ചും കൂടെ അതിന്റെ അളവില്ലാണ്ടാവും അതുകൊണ്ട് മുരിങ്ങ പൂവ് ഉപ്പേരി മുരിങ്ങ ചപ്പ് എലിശ്ശേരി ഇതൊക്കെ ഞാൻ അന്ന് ട്രൈ ചെയ്തതാണ് അതുപോലെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പല വിഭവങ്ങളും അന്നാണ് ഞാനുണ്ടാക്കാൻ പഠിച്ചത് രസം രസം എനിക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ടൊരു വിഭവാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നില്ല അതുപോലെ പാലൊഴിച്ചിട്ട് ഓലൻ എങ്ങനെയാണ് വക്കുകാന്നൊക്കെ അന്നാണ് ഞാൻ പഠിച്ചത് പിന്നെ കൂട്ട് കറി കായ ഇട്ട കൂട്ട് കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ ചേമ്പ് കൊണ്ടുള്ള ഓലൻ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കീട്ടുണ്ട് ലോക്ക് ഡൗണിൻ്റെ സമയത്ത്